നമ്മുടെ നാട് കുമരകം ഇവിടുത്തെ സംസ്കാരമെന്നു പറഞ്ഞ് വളരെ മനോഹരമായ ഒരു സംസ്കാരമാണ് എല്ലാ നാനാജാതി മതസ്ഥരും ഒന്നിച്ച് ജ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു വിവിധ നാല് ദേവാലയങ്ങൾ തന്നെ പല പന്ത്രണ്ടോളം ദേവാലയങ്ങളും അമ്പലങ്ങളും എല്ലാം ഇവിടെ ധാരാളമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കൂടുതലായും മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ട് കക്കാ വാരാൻ പോകുന്നവരുണ്ട് കൃഷിക്കാരുണ്ട് പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുണ്ട്

സമ്പാദിച്ച് കുടുംബം പോറ്റുന്ന പിന്നെ ഇട ഇട ദിവസങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം മറന്നൊന്നിച്ച് കൂടുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത്

നേരത്തെ ആർക്കും വേണ്ടാതെ കിടന്ന കായലോരങ്ങളെല്ലാം തന്നെ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്കു വേണ്ടി ഇപ്പോൾ വലിയ വലിയ റിസോർട്ടുകളാക്കിയിരിക്കുകയാണ് പണ്ട് ആൾക്കാരില്ല കാറ്റ് കൊള്ളാനും ഇവിടുത്തെ ഗ്രാമവാസികൾ കാറ്റ് കൊള്ളാനും സംസ വർത്താനം പറയാനും ഒക്കെ ആശ്രയിച്ചിരുന്ന കായൽ തീരത്ത് കേട്ടുകൊണ്ടിര കാറ്റു കൊള്ളാനായിട്ടൊക്കെ വന്ന് ഇരുന്ന് ഇരുന്ന് കായൽ തീരങ്ങളെല്ലാം ഇന്ന് ഈ ഒരു ടൂറിസം വരവോടു കൂടി അന്യമായിരിക്കുകയാണ് ഇപ്പോൾ കുമരകംകാർക്ക് വെമ്പനാട്ടുകായലിൻ്റെ കാറ്റ് കൊള്ളണമെങ്കിൽ ഒന്നോ രണ്ടോ പോയിൻറുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊരിടവും അവർക്കില്ല അതു വലിയൊരു പോരായ്മയായിപ്പോയിരിക്കുകയാണ് ടൂറിസം വന്നതോടു കൂടി ഒരുപാട് പേർക്ക് ജോലികളൊക്കെ കിട്ടി അതൊക്കെ ശരിയാണ് എങ്കിലും പാശ്ചാത്യ സംസ്കാരം ഒത്തിരി ഇവിടെ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നു തോന്നുന്നുണ്ട് കുട്ടികളുടെ ജീവിത രീതി ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ സായിപ്പിനെയും മദാമയെയും ഒക്കെ കണ്ട് അന്തം വിട്ടു നിന്ന കുട്ടികൾ അവരൊക്കെ ഇപ്പോൾ വലുതായി അവരൊക്കെ ഇപ്പം സായപ്പിൻ്റെയും മദാമേനെയും ഇപ്പം കണ്ടു കഴിഞ്ഞാൽ വലിയ മൈൻഡൊന്നും ഇല്ലാതെ അവർ പോകുന്നു പിന്നെ അവരോടൊക്കെ സംസാരിച്ചൊക്കെ പിള്ളേർ ഇതൊക്കെ ഇംഗ്ലീഷൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കൊറേയൊക്കെ അവരുമായിട്ട് സംസാരിക്കാനും ഹിന്ദിക്കാർ വരുമ്പോൾ അവരുമായിട്ട് ഹിന്ദി മുറി ഹിന്ദി പറഞ്ഞിട്ടാണെങ്കിലും കുട്ടികളും വലിയവരും ഒക്കെ ഇപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്നുണ്ട് മറ്റേത് മലയാളം മാത്രം പറഞ്ഞു കൊണ്ടിരുന്ന ഞങ്ങളുടെ കുമ്പനാട്ടുകാരാണ് അവരിപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജീവിത നിലവാരം തന്നെ മാറിയിരിക്കുന്നു പണ്ട് കഞ്ഞിയും കപ്പയൊക്കെ കഴിച്ചു കൊണ്ടിരുന്ന പിൾ പിള്ളേരൊക്കെ ഇപ്പം ബർഗറും മന്തിയൊക്കെയാണ് കെ എഫ് സിയൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഇഷ്ട വിഭവങ്ങൾ മാതാപിതാക്കളതനുസരിച്ച് മേടിക്കാനും ഒക്കെ കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽപ്പോലും ഇപ്പോഴത്തെ തലമുറ പുതിയ സംസ്കാരത്തിലേക്കങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൊ പിള്ളേർക്കും വലിയവർ തന്നെയാണെങ്കിലും അദ്ധ്വാനമൊക്കെ വളരെ കുറവാണ് എല്ലാവർക്കും വളരെ വൈറ്റ് കോളർ ജോബ് മതി എന്നുള്ള ഇതായിരിക്കുന്നു ആൾക്കാർ നമുക്ക് പഴയ ആ സംസ്കാരം അതിൽ തന്നെ തുടരാൻ സാധ്യം ഇല്ലല്ലോ എങ്കിൽ തന്നെ പഴയ സംസ്കാരവും പുതിയ സംസ്കാരവും കൂടി കൂട്ടിക്കലർത്തി ഒരു മാന്യമായ ഒരു സംസ്കാരത്തു തന്നെ തുടർന്നു പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തീർത്തും പഴഞ്ചനായി ജീവിക്കുന്നതിനോട് താൽപര്യമില്ല അതു പോലെ തീർത്തും മോഡേൺ ആയാൽ അതും ശരിയല്ല എല്ലാം പഴയതിലെ ആണെങ്കിലും പുതിയതിലെ ആണെങ്കിലും നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിനെ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് നല്ലൊരു വ്യക്തികളായിട്ടും നല്ല കുട്ടികളെയൊക്കെ അതേ സംസ്കാരത്തിൽ കൂടി ജീ നല്ലൊരു സംസ്കാരത്തിന് ഉടമകളായി ജീ വളർത്തിക്കൊണ്ടു വരാൻ എല്ലാവരും ശ്രമിക്കണം നമ്മുടെ പഴയ പാരമ്പര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുട്ടികൾക്കു പറഞ്ഞു കൊടുക്കണം അതിൽ നല്ല വശങ്ങളൊക്കെ മുറുകെ പിടിച്ചു കൊണ്ട് അത് നമ്മുടെ മക്കളിൽ പ്രകർത്തിക്കൊണ്ടിരിക്കണം പിന്നെ പുറത്തു നിന്നു വന്നിരിക്കുന്ന സംസ്കാരിത്തിലുള്ളവരുടെ കുറേയൊക്കെ ഭാഷകളും ഒക്കെ നമുക്ക് സ്വകരിക്കാം നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നതു കൊണ്ട് കുറേക്കൂടിയൊക്കെ ലോക പരിചയങ്ങളൊക്കെ കിട്ടും പുതിയ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും അതുകൊണ്ട് തീർത്തും പ്രോത്സാഹിപ്പിക്കരുതെന്നല്ല നമ്മുടെ സാംസ്കാരിക പൈതൃകം നേരായ രീതിയിൽ തന്നെ നന്നായിട്ടു തന്നെ പോകാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പിള്ളേർക്ക് കൊടുത്തു കൊണ്ടിരിക്കണം